കാലക്രമേണ ടെലി കമ്മ്യൂണിക്കേഷൻ അതായത് ആ ഒരു രംഗത്ത് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ആദ്യം മൊബൈൽ ഫോണുകളൊ അല്ലേ ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകളും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നത് ആദ്യം നമുക്ക് മൊബൈൽ ഫോൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവർ ടെലിഫോൺ ആയിരുന്നു അത് എന്താ പറയുക കണ്ടുപിടിച്ചത് ഒരൊറ്റ സ്ഥലത്തായിരുന്നു പിന്നെ അതു കഴിഞ്ഞ് അതിങ്ങനെ പതിയെ പതിയെ വേൾഡ് വൈഡായി അത് എക്സ്പാൻ്റായി വളർന്നു വലുതായി തുടക്ക സമയത്തങ്ങനെ ആര ആരുടെയും കയ്യിൽ ഈ പറയുന്ന ടെലി കമ്മ്യൂണിക്കേഷനൊന്നുമില്ല അഫോർഡ് ചെയ്യാനുള്ള പൈസയുമില്ല അന്ന് ഭയങ്കര എന്താ പറയുക പൈസ ചിലവാണ് ഈ സാധനം കൊണ്ടു നടക്കാനായത് പിന്നെ കാലക്രമേണ ഈ സാധനം മാറി മാറി അവസാനം ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് ഇൽ ഇപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും ഒരു ഫോണുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നൂറിൽ ഒരു തൊണ്ണുറ്റെട്ടു ശതമാനം ആൾക്കാർക്കും ഫോണുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കയാണ് കുറെ മാറ്റങ്ങളുണ്ടായി ആദ്യം എന്ന പ പഴയകാലത്ത് ഈ ഫോ ടെലിഫോണുകളായിരുന്നു ടെലിഫോൺ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വയർ ഉപയോഗിച്ച് കണക്ഷൻ വരുന്ന ഒരു സാങ്കേതിക വിദ്യയായിരുന്നു അതിനുശേഷം വയർലെസ്സുകളായി ചെറിയ ചെറിയ കുഞ്ഞു ഫോണുകൾ കീപാടുള്ള ഫോണുകളായി അതിനുശേഷം അതു മാറി ഇപ്പോൾ സ്മാർട്ട് ഫോണുകളായി ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ യുഗത്താണ് ഇപ്പോൾ വൺ ജി റ്റു ജീ ത്രീ ജി ഫൈ ജി വരെ എത്തിയിരിക്കയാണ് ഫൈ ജി യുഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കുറെയേറെ മാറ്റങ്ങൾ സമൂഹത്തിലും ഈ ഇതോടൊപ്പം ഉണ്ടായി പണ്ട് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെ രാജ്യത്തിനു പുറത്തുള്ള ആൾക്കാർക്ക് രാജ്യത്തു വേറെ നാട്ടിലുള്ള ആൾക്കാരെയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ കത്തുകൾ മുഖാന്തരം ആയിരുന്നു ബന്ധപ്പെടേണ്ടി വന്നിരുന്നത് ഇപ്പോഴാണ് സാധനം മാറി അതായത് കത്തുകളെന്നു പറഞ്ഞു വരുമ്പോൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം എടുക്കും ഈ സാധനം ആർക്കാണോ അയച്ചത് അയാൾക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോളിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ തന്നെ വാട്സപ്പിലാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജിലൂടെ തന്നെ ഒരു അല്ലേ ക്ളിക്കിലൂടെ അവരെ കാണാം നേരിട്ടു കണ്ടു സംസാരിക്കാം വിശേഷങ്ങളറിയാം എല്ലാം ചെയ്യാം പണ്ടായിരുന്നെ ഇതു പറ്റത്തില്ലായിരുന്നു എല്ലാം ഇപ്പെല്ലാം പോസിബിളായി തുടങ്ങി ഈയൊരു എന്താ ടെലി കമ്മ്യൂണിക്കേഷനിലൂടെ അതു ഭയങ്കര ഗുണമുള്ള കാര്യമാണ് അതുപോലെ തന്നെ പിന്നെന്താ പറയുക ഈ തെറ്റായ കാര്യങ്ങളും ഇതിലൂടെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതു പോലെ ഈ എന്താ തെറ്റായ കുറേ പ്രവർത്തികൾ ഇപ്പോൾ ഇതിൽ നടക്കുന്നുണ്ട് ഇനി ഇപ്പോൾ എന്നാൽ ഈ ഇപ്പോൾ കുട്ടികളൊക്കെ ഇരുന്നു കുറെ പ്രശ്നങ്ങൾ അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കുട്ടികളല്ല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അതല്ലാത്തിലും കാരണം ഇതൊക്കെ തന്നെ കാരണം ഈ തെറ്റായ കുറെ കാര്യങ്ങളിതിൽ നടക്കുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അശ്ലീല വീഡിയോകൾ പ്രദർശിപ്പിക്കുക ഷെയർ ചെയ്യുക പിന്നെ അതല്ലാതെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസിയെ പ്രൈവസി മറ്റുള്ളവർ ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷനെന്ന ഇതിലൂടെ ചൂർന്ന് എടുക്കുക അവരുടെ രീതിയിൽ ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു മേഖലയിലൂടെ അത് ഈ മേഖലയോട് നമ്മൾ തന്നെ അതായത് നമ്മളിത് ഉണ്ടാക്കിയത് ഒരു നല്ല കാര്യത്തിനാണെങ്കിലും തെറ്റായ രീതി കൂടിയാണിപ്പോൾ പലരും ഈ ഒരു മേഖല ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതു വളരെ മോശമായൊരു പ്രവണതയാണ് അപ്പോൾ അത് കുറക്കുക എന്നു പറയുക കുറക്കാൻ ഒരിക്കലും പറ്റത്തില്ല കാരണം ഈ ഒരു മേഖല അത്രത്തോളം വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനെ ഡിപെൻഡ് ചെയ്തു കുറെ കമ്പനികൾ കുറെ ആളുകൾ ഇതിനു പുറകെ ഉണ്ട് അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തുക എന്നു പറയുന്നത് പാടാണ് അപ്പോൾ പണ്ടത്തേക്കാൾ നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതിനേക്കാൾ ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ട് ഇ കെ ടി ഡി കമ്മ്യുണിക്കേഷൻ ഇപ്പോൾ ഈ സർവ്വേ നടക്കുന്നതും ആ ഒരു മേഖലയിലെ ഒരു ഉപകരണത്തിലൂടെയാണ് അപ്പോൾ ഇത് കുറെ വളർന്നിട്ടുണ്ട്